ഇന്ത്യയുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒരു ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഓരോ സംസ്ഥാനത്തും ഓരോ ഓരോ ഓരോ സ്ഥലത്തും ഓരോ ഭക്ഷണ രീതിയാണ് അപ്പം അതിൽ ഒരു ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പല പല രീതിയിലോട്ട് പല പല പല സ്ഥലത്തേക്ക് പോകുമ്പോൾ പല പല ഭക്ഷണ രീതി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ തെക്കോട്ട് പോവുകയാണെങ്കിൽ തെക്കൻ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ആ നമുക്ക് അത് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ചോറ് അവിയൽ സാമ്പാർ പുളിശ്ശേരി പിന്നെ ഇഡ്ഡ്ലി ദോശ എന്നിവയൊക്കെയാണ് തെക്കൻ കേരളത്തിലെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം തെക്കൻ തെക്കൻ കേരളവും പിന്നെ കേരളത്തിൻ്റെ കേരളത്തിലെ ഭക്ഷണ രീതി പിന്നെ പറയാൻ തമിഴ്നാട്ടിലെ ഭക്ഷണ രീതി പിന്നെ ഈ പറയുമ്പത്തേക്കും കർണാടകയിലെ ഒക്കെ ഭക്ഷണ രീതി എല്ലാവിടുത്തെയും വ്യത്യാസമാണ് വ്യത്യസ്ഥമാണെന്ന് പറഞ്ഞാൽ വ്യത്യസ്ഥവുമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ അത് അത് ഒരു ഒരുപോലെയുള്ള ഒരുപോലെയുള്ളത് ഒരുപോലുള്ള രീതീയിലുള്ളത് കാര്യങ്ങളുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എന്നെക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ചോല ഭട്ടൂര പൂരി

മധുരം മധുരം മധുരവും ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴും പല സ്ഥലത്തും പല സംസ്ഥാനത്തും പല പല രീതിയിലും പല രീതിയിലും നമുക്ക് അത് കേൾക്കാൻ സാധിക്കും പല രീതിയിലും നമുക്ക് അത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആ മധുരം മധുരത്തിലും മധുരത്തിലൊക്കെ ഉള്ള ഒരു വ്യത്യാസം മധുരമെന്നൊക്കെ പറഞ്ഞാൽ നല്ല മധുരത്തോടെ ഉള്ള ഭക്ഷണ രീതിയായിരിക്കും അവരുടേത് കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പക്ഷേ ഈ ലഡ്ഡു ജിലേബി ആ എന്നൊക്കെ ആയിരിക്കും അതൊക്കെ എല്ലാം ഒരു കോമൺ ആണ് എല്ലാവർക്കും ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും ആ മധുരത്തിൻ്റെ ഭക്ഷണ രീതിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിലെ ചില വിഭവങ്ങൾ മസാലകളും വിഭവം ചില ജനപ്രിയ എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചെടത്തോളം ഞാൻ എനിക്ക് ആണെങ്കില് എനിക്ക് ഏറ്റവും ഇഷ്ട്ടമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു തെക്കൻ ആ തെക്കൻ ഇന്ത്യയിൽ ആ ഒരു ഇത് വടക്ക് വടക്കിലെ ഒരു വടക്കൻ ഇന്ത്യേലെ ഒരു വിഭവങ്ങളോടാണ് എനിക്ക് കൂടുതൽ താൽപ്പര്യം കാരണം അതിൽ കുറേയൊരു കു റേ കുറേ മസാലാസ് ഉണ്ട് കുറേ കുറേ കുറേ വിഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറേ കൂടെയൊക്കെ നമുക്ക് നമുക്കത് ഒരു രുചിച്ച് കഴിക്കാൻ തോന്നും രുചിച്ച് കഴിക്കുന്ന ഒരു കാര്യമാണ് രുചി ഉണ്ടായിരിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടായിരിക്കണം കഴിക്കുന്ന രീതിക്ക് രുചി ഉണ്ടായിരിക്കണം എല്ലാത്തിനും ആ ഒരു രുചി കലർത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഒരു കാലക്രമേണ നമുക്ക് അതിൻ്റെ ഒരു ഒരു ഒരു രുചിയും കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും ഇനി എന്താണ് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഇന്ത്യയിൽ ഒരു രീതി എന്ന് പറയുമ്പത്തേക്കും നമുക്ക് അറിയാലോ ദൈനംദിന ജീവിതത്തിലൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ജനപ്രിയ ഭക്ഷണം പറഞ്ഞാൽ എനിക്ക് അത് തന്നെയെ ഉള്ളൂ